ആദ്യമങ്ങ് ചെടികൾ താത്പര്യം ഇല്ലായിരുന്നു പിന്നെ സ്വാന്തമായിട്ട് വീടൊക്കെ എടുത്തപ്പോൾ എനിക്ക് താത്പര്യപ്പാ ചെടികളൊക്കെ ഉണ്ടാക്കണത് രസമാണല്ലോ നമ്മൾ ചില വീട്ടിലൊക്കെ പോകുമ്പോൾ പല ചെടികളൊക്കെ വളർത്തി അതു കാണാൻ നല്ല തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് ഞാനിപ്പം ഞാനൊരു ആനക്കയം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആനക്കയം എത്താനാകുമ്പോൾ ഒരു വീടുണ്ട് കുറേ ചെടികളൊക്കെയുള്ള അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നല്ല രസമായി തോന്നി പല പല പല പൂക്കളും വീട്ടിൻറ്റടുത്ത് ഇങ്ങനെ പൂക്കളൊക്കെ നല്ല രസമാണല്ലോ അപ്പോൾ അങ്ങനെ പല വീടുകളിലും കണ്ടിട്ടാണ് ചെടികൾ വളർത്താൻ തുടങ്ങുകയെന്നു ഞാൻ വിചാരിച്ചത് പിന്നെ പല പല പാർക്കിക്ക് പോകുമ്പോഴും വ്യത്യസ്തമായ ചെടികളൊക്കെ കാണും അപ്പോൾ അതുകൊണ്ടൊക്കെ രസമായി പോണു അങ്ങനെയാണ് വളർത്തിയാക്കുള്ള എന്നു തോന്നിയത് പിന്നെ വളർത്തുമ്പോൾ ഉണ്ടാകുന്നത് പൂവിടുമ്പോഴും ഒക്കെയൊരു ഭംഗിയാണ് ഞാൻ വിചാരിച്ചു ഇനി ചെടികളെ വീട്ടിൽ വളർത്താം ഇപ്പോൾ ഇഷ്ട ഇഷ്ട പ്രവർത്തിയാണ് ചെടികളെ വളർത്തലും നനക്കലും ഒരു പുവുണ്ടോയെന്നു നോക്കുന്നതും ഒക്കെ നല്ലിഷ്ടമുള്ളൊരു കാര്യമാണ്